മലയാളികൾ അവരുടെ സ്വത്വം പ്രകടിപ്പിക്കുക എന്ന് വച്ചാൽ അവരൂടെ ഏറ്റവും വലിയ ഐഡൻ്റിറ്റി എന്ന് പറയുന്നത് അവരുടെ ഭാഷ തന്നെ ആണ് ഭാഷ അവർ ആശയ വിനിമയത്തിന് ഉപയോഗിക്കുന്നത് അവരുടെ ഭാഷയാണ് വ്യക്തമായിട്ട് അവർക്ക് അവരുടെ ഭാഷയ്ക്ക് ഒരു ലിപിയുണ്ട് അല്ലെ മലയാള അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് അവർ എഴുതുന്നത് അവർക്ക് എന്തെങ്കിലും പരസ്പര ആശയ വിനിമയം നടത്തുന്നത് അവരുടെ ഭാഷകളിലൂടെയാണ് മലയാളികൾ അത് പ്രകടിപ്പിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഒരാൾക്ക് ഒരു കത്ത് എഴുതുകയാണെങ്കിലും അത് മലയാളത്തിലാണ് എപ്പോഴെങ്കിലും എഴുതി കൊടുക്കുക ആണെങ്കിലും അല്ലെങ്കിൽ ഒരിടത്ത് നമുക്ക് ഒരു അപേക്ഷ കൊടുക്കുകയാണെങ്കിലും നമ്മൾ ആ മലയാള ഭാഷയുടെ ആ ലിപികളുപയോഗിച്ച് മലയാളം ലിപി ഉപയോഗിച്ചാണ് നമ്മൾ ആശയ വിനിമയങ്ങൾ വിനിമയം നടക്കുന്നതും അതുപോലെ ഈ അപേക്ഷകൾകൊക്കെ കൊടുക്കുന്നത് പിന്നെ രാജ്യത്തിൻ്റെ എവിടെ ചെന്നാലും നമ്മൾ ഇന്ത്യക്കരെന്നോ അല്ലെ കേരളത്തിൽ നിന്നുള്ളവരോ എന്നല്ല അറിയപ്പെടുന്നത് മലയാളികൾ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് കാരണം നമ്മൾ സംസാരിക്കുന്ന ഭാഷ മലയാളമാണ് ഇപ്പം കേരളത്തിൽ തന്നെയാണെങ്കിലും പതിനാല് ജില്ലകളിലും മലയാളം ഭാഷ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഓരോ ജില്ലയിലും അത് വ്യത്യസ്ത രീതിയിലാണ് അവർ പ്രൊനൗൺസ്സ് ചെയ്യുന്നത് അവരുടെ സ്ലാങ്ങ് വ്യ ത്യസ്തമായിട്ടായിരിക്കും അവർ പറയുന്നത് അത് ഓരോ ജില്ല അല്ലെങ്കിൽ ഓരോ പ്രദേശത്തെ അടിസ്ഥാനമാക്കി അതിൽ വ്യത്യാസമുണ്ടായിരിക്കും എന്നാലും കേരളത്തിൽ എല്ലാവരും ഞങ്ങൾ മലയാളികൾ എന്ന കേരളീയർ എന്നതിലുപരി ഞങ്ങൾ മലയാളികൾ എന്നാണ് അറിയപ്പെടുന്നത് ഇത് ചിലർ പറയുന്നത് കേൾക്കാം ചന്ദ്രനിൽ ചെന്നാലും അവിടെ മലയാളികളുടെ ഒരു തട്ട് കടയുണ്ടായിരിക്കും എന്നാണ് പറയുന്നത് വേറെ ഏത് ഭാഷയിൽ ഭാഷക്കാർ വന്നാലും മലയാളികൾ അത് മലയാളത്തിൽ തന്നെയാണ് ഹാൻ്റിൽ ചെയ്യുന്നത് ഇപ്പം മലയാളികളുടെ ഒരു ഐഡൻ്റിറ്റി എന്നു പറഞ്ഞാൽ മലയാളം ഭാഷ തന്നെയാണ്

നമ്മൾ ഇവിടെ ജനിച്ച് വളർന്നത് കൊണ്ട് നമ്മൾ കുഞ്ഞിലേ തൊട്ട് മലയാളം പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഇല്ല അതേപോലെ മലയാള ഭാഷ പഠിക്കുന്നവർക്ക് ഒരു രീതിയിലും മറ്റ് ഭാഷ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നും ഒരു കേട്ടു കേൾവിയുണ്ട്